ഈ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭപ്രായമാണുള്ളത് കാരണം ഞാൻ അതിലൊരു അനുഭവസ്ഥനാണ് കാരണം എൻ്റെ അച്ഛനൊരു ഫോട്ടോഗ്രാഫറാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ് ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്നു ഇപ്പോൾ പ്രായമായി അപ്പം ഫോട്ടോഗ്രാഫി എന്ന നല്ലൊരു സ്കോപ്പുള്ളാണ് നല്ല നല്ലൊരു ക്ര ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു കലയാണ് ഫോട്ടോഗ്രാഫി ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രേ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളു പുതിയ മോ മോഡേൺ ആധുനിക ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളെപ്പഴും അപ്ഡേറ്റഡ് ആയിരിക്കേണ്ട ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി

കഴിവിതിലേറ്റവും മുഖ്യമാണ് നമ്മുടെ കഴിവിന് അനുസരിച്ചായിരിക്കും ഈ ഫോട്ടോഗ്രാഫിയെന്ന തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കഴിവ് ഉള്ളെന്ന് പറയും നമ്മളതിന് നമ്മള് നല്ലോണം പരിശ്രമിക്കണം പല പല പുതിയ കാര്യങ്ങൾ പുതിയ അപ്ഡേഷനുകൾ പുതിയ ടെക്നോളജീസ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ തൊഴിലായി എടുക്കുന്നത് ഫോട്ടോഗ്രാഫി എന്നും ഒരു നമുക്കൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇനി ഉള്ള കാലങ്ങളിൽ ഫോട്ടോഗ്രാഫിക്ക് വളരെയധികം സ്കോ പിന്നെ പ്രാധാന്യമുള്ളൊരു കാലവാണ് വരുന്നത് കാരണം ഫോട്ടോഗ്രാഫി ഇല്ലാത്തൊരു സാ കാരണം ർ സാഹചര്യമില്ല എല്ലാവർക്കും അവരുടെ ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കാൻ പ്ര വളരെയധികം താൽപര്യള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പഴും ക്വാളിറ്റിയോടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ക്വൾ ഇപ്പഴത്തെക്കാലത്ത് എല്ലാർക്കും ക്വാളിറ്റി ഇമ്പോർട്ടന്റാണ് അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോകൾ എടുക്കാനും അതിൽ അതിൽ കൂടെ നമുക്ക് നല്ലൊരു തൊഴിലവസരം ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ഫോട്ടോഗ്രാഫി എന്നും നല്ലൊരു കലയാണ് നല്ലൊരു തൊഴിലാണ് ഫോട്ടോഗ്രാഫി എന്നാൽ നമ്മൾ അതിന് കുറെ കഷ്ടപ്പാടുകൾ എടുക്കേണ്ടതാണ് കാരണം നമ്മളെന്നും അപ്ഡേറ്റഡായിരിക്കുകയും നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന തൊഴില് നമ്മളത്രേം സ്നേഹിച്ച് നമ്മൾ അതിൻ്റെ സ്കില്ല് നമ്മള് വർദ്ധിപ്പിക്കുകയും ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ അപ്ഡേഷനും മോഡേണായിട്ടുള്ള ടെക്നോളജീസെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടത് ഫോട്ടോഗ്രാഫിക്ക് വളരെ വലിയ അത്യാവശ്യമായ കാര്യവാണ് അതുപോലെ തന്നെ ഈ കാലങ്ങളിൽ വിവാഹ ഫോട്ടോഗ്രാഫിക്ക് കുറിച്ച് എന്താന്ന് പറയാനുള്ളതെന്നുവെച്ചാൽ വിവാഹ ഫോട്ടോഗ്രാഫി ഏറ്റവും ഭയങ്കരം സ്കോപ്പൊള്ളൊരു കാര്യവാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹ ഫോട്ടോഗ്രാഫി ഇല്ലാത്തൊരു വിവാഹങ്ങളും ഇന്ന് ഇന്ന് നടക്കുന്നില്ല വിഹാ വിവാഹം എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്നതാണ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി കാരണം എല്ലാവർക്കും അവരുടെ വിവാഹം ഒരു മെമ്മറിയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ താല്പര്യള്ളതും പല ഭാവിയിലവർക്ക് കാണാൻ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫിനെ ആർക്ക് കൊടുക്കും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കാനും നോക്കും മോഡേണായിട്ടുള്ള പുതിയ രീതികളും എല്ലാം അറിയാവുന്നതാണ് ആൾക്കാർക്കാണിപ്പം ഫോട്ടാഗ്രാഫി വിവാഹ ഫോട്ടോഗ്രാഫി അവർ നൽകാൻ താല്പര്യപ്പെടുന്നത് അതിനുവേണ്ടി ഞാൻ പലതരം വെറൈറ്റി ഫോട്ടോഗ്രാഫി വിവാഹ ഫോട്ടോഗ്രാഫികളാണ് ഇപ്പഴ് നടക്കുന്നത് വിവാഹ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും വലിയൊരു കാര്യവാണ് സേവ് ദ ഡേറ്റെന്ന് പറയുന്നത് ഒരു പ്രവണത അത് വളരെയധികം ഇംപോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പഴത്തെ വിവാഹ ഫോട്ടോഗ്രാഫി അതുപോലെ മോഡേൺ ആയിട്ടുള്ള കളറിംഗ് ഗ്രൈഡിങ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ അതുപോലെ നമ്മൾ ക്രിയേറ്റീവായിട്ടും പലതര ക്രിയേറ്റിവിറ്റിയിലൂടെ ഫോട്ടോഗ്രാഫി എടുക്കേണ്ടതാണ് ഈ കാലഘട്ടങ്ങളിൽ ഇമ്പോർട്ടന്റാണ് ഇതക്കെയാണ് ഫോട്ടാഗ്രാഫി വിവാഹ ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പല ഇപ്പം വേറൊരു പ്രവണതയാണ് കാരണം വിവാഹ ഫോട്ടോഗ്രാഫി പലരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം അതില് കുറെ വേണ്ടാത്ത കാര്യങ്ങളും കുറെ ഉൾപ്പെടുത്തുന്നുണ്ട് ചിലതൊക്കെ കുറച്ച് ഓവറായി പോകുന്നുണ്ട് കുറെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയും വേണം എന്തൊക്കെയാണേലും വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു കാര്യമാണ് അതിനെ അലങ്കോലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫികളും സമ്മതിക്കേണ്ടതില്ല എന്തെന്നൊക്കെ പറഞ്ഞാലും ഇപ്പം വിവാഹങ്ങളിൽ ഫോട്ടോഗ്രാഫി എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റായതാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യവാണ് അപ്പം ഈ ഈ ഒരു തൊഴിൽ എൻ്റെ ഫോട്ടോ വിവാഹ ഫോട്ടോഗ്രാഫി എന്നൊരു തൊഴിൽ മേഖല വളരെ കാലം മെച്ചപ്പെടുന്നതും സാധ്യത ഉള്ള തൊഴിൽ സാധ്യത ഉള്ള മേഖലയെന്ന് ഞാൻ ഇവിടെ പ്രസ്താപിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി